ഞാനൊരു പുതിയ സ്മാർട്ട് ടി വി ഓൺലൈനായി വാങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു സാധ്യമായ ഏറ്റവും മികച്ച ഡീല് എനിക്കു ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലും വില വ്യത്യാസപ്പെടാം എന്നാൽ പക്രിയ ലളിതമാക്കാൻ ഒരു വലിയ താരതമ്യ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു ആ ഞാൻ വെബ്സൈറ്റ് സന്ദർശിക്കുകയും എനിക്കു താല്പര്യമുള്ള നിർദ്ദിഷ്ട മോഡലിനായി തിരയുകയും സ്ക്രീനിൻ്റെ വലിപ്പം അതുപോലെതന്നെ റെസലൂഷൻ സ്മാർട്ട് സവിശേഷതകൾ എന്നിവ പോലുള്ള അതിൻ്റെ സവിശേഷതകൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ വിവിധ ഓൺലൈൻ സ്റ്റോറുകൾ വാഗ്ദാനം ചെയ്യുന്ന വിലകളുടെ ഒരു ലിസ്റ്റ് വെബ്സൈറ്റ് വേഗത്തിൽ സൃഷ്ടിക്കുന്നു നിലവിലുള്ള ഏതെങ്കിലും കിഴിവുകൾ ക്യാഷ്ബാക്ക് ഓഫറുകള് വിപുലീകൃത വാറന്റികൾ അല്ലെങ്കിൽ സൗജന്യ ഇൻസ്റ്റാലേഷൻ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ എന്നിവയും ഇത് ഹൈലൈറ്റ് ചെയ്യുന്നു ഇതെനിക്ക് എൻ്റെ ഓപ്ഷനുകളുടെ സമഗ്രമായ കാഴ്ചകൾ നൽകുന്നു ഫലങ്ങൾ വിശകലനം ചെയ്ത ശേഷം ഞാൻ വിലകൾ മാത്രമല്ല ഡെലിവറി സമയം റിട്ടേൺ പോളിസികൾ ഓരോ പ്ലാറ്റ്ഫോമിലെയും ഉപഭോക്തൃ അവലോകനങ്ങൾ എന്നിവ പോലുള്ള ഘടകങ്ങളും താരതമ്യം ചെയ്യുന്നു